ഹലോ ഷേർളി സുഖമല്ലേ പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം നമ്മുടെ പിന്നെ കുടുംബ കൂട്ടായ്മക്ക് പിന്നെ ആൾക്കാരെല്ലാം പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കടിയും ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് കടിയും എല്ലാം കടി മേടിക്കാനായിട്ട് അവിടെ നിന്ന് അതു കൊണ്ടു തരികയില്ലേ ഒരു നാൽപ്പത്തി അഞ്ച് അമ്പത് പേരൊക്കെ കാണുകയില്ലേ കാണുമാായിരിക്കും അപ്പോൾ അവർക്കുള്ള പാൽ ആ അപ്പോൾ അത് പല പല സൈസിലുള്ളത് എടുക്കണേ എന്താണെന്ന് വച്ചാൽ ഷുഗറുകാരും ഒക്കെ കാണുമല്ലോ അപ്പോൾ മധുരം ഉള്ളതും ഇല്ലാത്തതും എല്ലാം അപ്പം ഒരു ഒരു പത്തെണ്ണം പത്തെണ്ണം വച്ചു ഒരു രണ്ടു മൂന്നു ഒരു രണ്ടു മൂന്നു സൈസ് എടുത്തേര് കേക്കോ ബോണ്ടയോ വടയോ ഏ അങ്ങനെയൊക്കെയുള്ള ഒരു പത്തോ പത്തോ പതിനഞ്ചോ പറ്റിയ ഒരു അമ്പത് എണ്ണം എടുത്തേരെ പിന്നെ ആ ആ അതെല്ലാം

ആ അതിൽ ഒരു മൂന്ന് അതിൽ ഒരു മൂന്ന് നാല് കൂട്ടം എടുത്താൽ മതി മൂന്ന് നാല് കൂട്ടം മൂന്ന് നാല് കൂട്ടം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം കൈ തുടയ്ക്കാനുള്ള ടിഷ്യു പേപ്പറും ടിഷ്യു പേപ്പറും പേപ്പർ പ്ലേറ്റും പേപ്പർ പ്ലേറ്റും എടുത്തു കൊണ്ട് വരണം പിന്നെ ചായ ചായ വേണം ചായ വിത്ത്ഔട്ടും വേണം അല്ലാത്തതും വേണം അന്നേരം അന്നേരത്ത് അത് ചൂടോടെ ചൂടോടെ കിട്ടാനുള്ള രീതിയിലാണ് ചൂട് പോവാത്തത് അതുകൂട്ട് പാത്രത്തിൽ കൊണ്ടുവരണം അപ്പം നമുക്ക് കുടുംബ കൂട്ടായ്മയിലേക്ക് ഇത് കൂട്ടായ്മ ഒരു പിന്നെ ആറ് അര ആവുമ്പോൾ തുടങ്ങും ഏഴ് അര ആവുമ്പോൾ ഏഴ് അര ആവുമ്പോൾ തീരും അപ്പോൾ ഏഴ് അര ആകുമ്പോഴത്തേക്കും നമുക്ക് കാപ്പി കൊടുക്കണമല്ലോ അപ്പോഴത്തേക്ക് ചൂട് ചൂട് പോവാതെ ഉള്ള ഒരു പാത്രത്തിലെല്ലാം കൊണ്ടു വന്നു ആ എന്നാൽ ശരി ഓക്കെ